ഫോട്ടോഗ്രാഫി ടെക്ക്നിക്കുകള് നമുക്ക് പ്രധാനമായും സോഷ്യല് മീഡിയയില് നിന്നാണ് പഠിക്കാന് പറ്റുന്നത് ഫോട്ടോഗ്രാഫിയുടെ ടെക്ക്നിക്കുകള് നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നിക്കുകള് നമ്മള് തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നതു കാരണം ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാന് പറ്റില്ല പക്ഷേ പഠിക്കാന് പറ്റും ഫോട്ടോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രഫി ഞാന് യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത് യൂട്യൂബിൽ ഐ എസ് ഒ ഷട്ടര് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് ഐ എസ് ഒ ഷട്ടര് സ്പീഡ് വൈറ്റ് ബാലന്സ് കെല്വിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു അറിവു വേണം അത്തരം അറിവുകള് ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രഫി എന്ന കാര്യം വളരെ സിംപിൾ ആണ് ചെറിയ രീതിയിലുള്ള ശ്രദ്ധയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രഫി നന്നായിട്ടു ചെയ്യാന് പറ്റും ഫോട്ടോഗ്രഫി ഇത്രയും ആളുകളിലേക്കു പല മെസേജുകള് കൊണ്ടു വരുന്ന ഒരു സംഭവമാണ് ഫോട്ടോഗ്രഫി ഫോട്ടോഗ്രഫി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ജീവിതമാണ് ജീവനാണ് ഒരു ഒരു ഇന്സിഡന്റിന് ജീവിച്ചു കാണിക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോഗ്രഫി ഒരു ഫോട്ടോ എടുത്താല് ആ ഫോട്ടോയ്ക്ക് ജീവന് കൊടുക്കുന്നത് ആ ഫോട്ടോ എടുക്കുന്ന ആളാണ് ഫോട്ടോ എടുക്കുന്ന ആൾ ജീവന് കൊടുക്കുന്ന ഫോട്ടോയ്ക്ക് നിറം പകരുന്ന ഒരു കേവലമൊരു കേന്ദ്രം മാത്രമാണ് ക്യാമറ